ഞാന് ഇന്നലെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഞാൻ ഡ്രൈവറിനെ എവിടുന്നാ ഡ്രൈവറിൻ്റെ നമ്പറ് തന്നതാ ഞങ്ങക്ക് ക്യാബിനാന്ന് പറഞ്ഞിട്ട് ഞാന് തിരുവനന്തപുരത്തേക്ക് പോവാൻ വേണ്ടീട്ടായിരുന്നു ക്യാബ് ബുക്ക് ചെയ്തത് പക്ഷേ ഞാന് പോകുന്നില്ല അത് പറയാൻ വേണ്ടി വിളിച്ചതാ ഇന്നലെയാ ബുക്ക് ചെയ്തത് ഇന്ന് ഞങ്ങള് പിന്നെ പതിനാറാം തീയതി രാവിലെയായിരുന്നു ഓട്ടം അടുത്ത തിങ്കളാഴ്ച ഒൻപത് മണിക്ക് വരാം പിക്ക് ചെയ്യാൻ വരാന്നായിരുന്നു പറഞ്ഞത് പക്ഷെ അന്നത്തേക്ക് വരണ്ട അത് മാറ്റി വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ അപ്പം അത് വരണ്ടാ എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ ഇനീപ്പം നിങ്ങള് അന്ന് വരൂ അല്ലോ നേരത്തെ പറയാല്ലോ വരണ്ടാന്ന് അതുകൊണ്ട് വിളിച്ച് പറഞ്ഞതാ ഇനിപ്പം ഞങ്ങള് വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നേരത്തെ വിളിച്ച ഡ്രൈവറിൻ്റെ നമ്പറ് തന്നിട്ടുണ്ട് അത് ക്യാബ് ഏജൻസിയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ചേട്ടനെയും വിളിച്ച് പറഞ്ഞേക്കാന്ന് കരുതി